മുട്ടു വേദന ഇപ്പോൾ സർവ സാധാരണമാണ് ഏത് വിഭാഗത്തിലായാലും മുട്ട് വേദന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട്തന്നെ എല്ലാത്തിനുവുള്ള ഒരു മരുന്ന് ആയുർവേദത്തിൽ തന്നെയുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ കുഴമ്പിട്ട് ലൈക്ക് മഞ്ഞ വെളിച്ചെണ്ണെയുണ്ട് ആ വെളിച്ചെണ്ണ ഒര് ചെറിയ ചൂടിൽ ഉപ്പുവിട്ടട്ട് അത് ആദ്യമെ തന്നെ മുട്ടുവേദനയുടെ അവിടെ പുരട്ടുകയും അതൊഴി അത് വെച്ച് ഉഴിയുകയാണ് ചെയ്യുക നല്ലാണ്ട് ഉഴിയില്ല മുട്ട് വേദന കൈ വേദന എല്ലുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ഉഴിയില്ല കാരണം ഉഴിഞ്ഞാൽ അത് എല്ലിന് തന്നെ ദോഷമാണ് കിഴിയും വെക്കില്ല കിഴി ഇല കിഴിയുണ്ട് ഇറച്ചിക്കിഴിയുണ്ട് കുറെ തരത്തിലുള്ള കിഴികളുണ്ട് പിന്നീടുള്ളത് ധാര ഉഴിക്കലാണ് തേങ്ങാപാല് കൊണ്ട് ധാര ഉഴിക്കുന്നു നെല്ലിക്ക തേങ്ങാപാല് പുളിയില എന്നിവ കൊണ്ടുവന്ന് ധാര ഉഴിക്കുന്നു അതുകൊണ്ട്തന്നെ അത് വളരെ ഏറെ ഫലപ്രദമാണ് പിന്നെ ഇല വെച്ച് കെട്ടുകയും വെറ്റില വേപ്പില അങ്ങനെ ആയുർവേദ മൂല്യങ്ങളുള്ള ഇലകൾ കൂട്ടിക്കെട്ടി അത് പിന്നീട് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അതഴിക്കുന്നു അതുകൊണ്ട്തന്നെ മുട്ട് വേദനയ്ക്ക് വളരെ ശമനങ്ങള് നമുക്ക് കാണാൻ പറ്റും കൂടുതലായിട്ട് വെളിച്ചെണ്ണ മഞ്ഞെണ്ണ കുഴമ്പ് തൈലം എന്നിവ കൂട്ടി സമ്മർസിദം കൂട്ടി കാലുമ്മെൽ തേയ്ക്കുമ്പോൾ അത് വളരേ മുട്ടുവേദനകൾക്ക് കുറെയേറെ മാറിയിട്ടുണ്ട് പിന്നീട് ഈ ചികിത്സയോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിലും നമ്മൾ കൂടുതലായിട്ട് പഥ്യം നമ്മൾ കാണണ്ടതാണ് ഇറച്ചിയും പാലൊക്കെ നമ്മൾ ഒഴിവാക്കണം ചില ചെറിയ ചികിത്സകൾ പാല് കഴിക്കാം ചില ചെറിയ ചികിത്സകളിൽ അത് പാടില്ല അങ്ങനെ ഒക്കെയുണ്ട് അതുകൊണ്ട്തന്നെ നമ്മള് ഓരോ ആയുർവേദ ചികിത്സക്കും അതിൻറ്റേതായ പഥ്യങ്ങളും അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങളുവുണ്ട് അതുകൊണ്ട്തന്നെ അത് നോക്കി വേണം നമ്മളെല്ലാം ചെയ്യാൻ ചിലയിടത്ത് പാല് കൊണ്ട് ധാര ഒഴിക്കുന്നത് ചില സ്ഥലത്ത് എണ്ണ കൊണ്ട് ധാര ഒഴിക്കുന്നു എല്ലാം വളരെ നല്ലതാണ് പലതരത്തിലൊള്ള ചികിത്സകളും ആയുർവേദത്തിലുണ്ട് അതെല്ലാം കേരളത്തിലായാലും മറ്റെവിടെയായാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പ്രാചീന രീതിയിലുള്ള പലതും ഇപ്പഴും ആയുർവേദത്തിലുണ്ട് തൈലം കുഴമ്പ് വെളിച്ചെണ്ണ മഞ്ഞെണ്ണ എന്നിവയെല്ലാം മുട്ട് വേദനക്കായാലും സന്ധി വേദനക്കായാലും ഒഴിക്കും